വിദ്യാഭ്യാസ രംഗത്ത് വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് സ്വകാര്യ സ്കൂളുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളുകളിൽ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ടീച്ചേഴ്സിന് ശ്രദ്ധ ഉണ്ടാകും പിന്നെ അവരുടെ കരിക്കുലം ആക്ടിവിറ്റീസ് കോകരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളുകളിലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് ക്ലാസ്സെടുത്ത് അത് കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പക്ഷെ സ്വകാര്യ സ്കൂളുകൾ അങ്ങനെയല്ല കൃത്യമായിട്ട് കുട്ടികുടെ വാല്യുവേഷൻ ഏത് കരിക്കുലം ആവട്ടെ കോകരിക്കുലം ആവട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും കൃത്യമായിട്ട് അവരുടെ ഒരു വാല്യുവേഷൻ കൃത്യമായിട്ട് അവർ നടത്തിയതിന് ശേഷം അവർ കൃത്യമായിട്ട് സ്റ്റുഡൻറ്സിൻ്റെ ഗ്രേസ് മാർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് അവരിൽനിന്ന് സ്വാഭാവികമായിട്ടൊരു നിശ്ചിത ഫീസ് വാങ്ങുന്നത് കൊണ്ട് അതിനുമായി കൃത്യമായിട്ടുള്ളൊരു ഒരു വിദ്യാഭ്യാസ രീതി കൃത്യമായിട്ട് അവരതിനെ കുട്ടികളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ഒരു വളരെ നല്ല ഒരു സിലബസ് ഒരു നല്ല വൃത്തിയുള്ളൊരു സിലബസ്സ് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിച്ച് അവരുടെ ഫ്യൂച്ചർ മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ടോട്ടൽ അവരുടെ ജീവിതത്തിൽ ടീച്ചേഴ്സ് അവരുടെ ജീവിതത്തിലൊരു പ്രതിഫലം ചെയ്യിപ്പിക്കും ഈ സ്വകാര്യ സ്കൂളുകൾ ആകുമ്പോൾ ഉള്ള ഒരു വളരെ വലിയൊരു ഗുണമാണത് അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റായത് കൊണ്ട് തന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചുകൂടി സ്ട്രിക്റ്റായിരിക്കും അവർക്ക് കാര്യങ്ങളിൽ അവർ ജീവിതശൈലി അവരുടെ വേഷവിധാനം അവരുടെ യൂണിഫോം അവരുടെ പങ്ചുവാലിറ്റി എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു കൃത്യമായ ഒരു സ്ട്രൈറ്റ് വേ ഉണ്ടാവും അവർക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രൈറ്റ് വേ പ്രൊവൈഡ് ചെയ്യാനും ടീച്ചേഴ്സ് ബാധ്യസ്തരുമായിരിക്കും അതുകൊണ്ട് പക്ഷെ സർക്കാർ സ്കൂളിൽ ചില സ്കൂളുകളിലൊന്നും തീരെ ഒരു പങ്ച്വലായിട്ടുള്ളൊരു കാര്യം ചില സ്കൂളുകളിലൊന്നും കാണാറില്ല പൊതുവെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല കുട്ടികളുടെ സ്വഭാവത്തെ കൂടി അത് ബാധിക്കും ഇന്ന് ഇപ്പോൾ ലഹരി ഒരു വളരെ വലിയ വിപത്തായി നിൽക്കുന്ന സമയത്ത് കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളിൽ ഇല്ല എന്നല്ല എങ്കിൽ പോലും സർക്കാർ സ്കൂളിൽ ആപേക്ഷികമായിട്ട് അധികവും കണ്ടുവരും കാരണം അവരുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്താനുള്ള ഒരു സ്വാതന്ത്രം അവിടുത്തെ ടീച്ചേഴ്സും ഇല്ല പിന്നെ കുട്ടികളുടെ തിരിച്ചുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ആ ഒരു രൂപത്തിലാകുമ്പോൾ ടീച്ചേഴ്സിനും അതൊരു മടി തന്നെയായിരിക്കും